ഹലോ നമസ്കാരം പച്ചക്കറി കടയല്ലേ ആ നമസ്കാരം ഞാൻ കാസർഗോഡ് കടപ്പുറത്തുനിന്നാണ് വിളിക്കുന്നത് നമുക്ക് കുറച്ച് പച്ചക്കറി വേണമായിരുന്നു എന്താണ് പച്ചകറികളുടെയെല്ലാം ഇപ്പോളത്തെ വില

ഉം ഉം ആ കാബേജിനെല്ലാം എന്ത് വില കിലോയ്ക്ക് ഉണ്ട് കിലോയ്ക്കല്ലേ അപ്പോൾ പിന്നെ ഇപ്പം പച്ചകറി കൂടുതൽ വില കൂടുന്നില്ലേ അപ്പോൾ സാധാരണക്കാരായ നമുക്ക് കുറച്ച് ഇത് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന പച്ചക്കറി കടയാണ് അപ്പം നിങ്ങൾ കുറച്ച് വില കുറച്ച് തരുകയാണെങ്കിൽ ഞാനും വാങ്ങിക്കാം പിന്നെ എൻ്റെ ഭാഗത്തുള്ള കുറേ ആൾക്കാർ പച്ചക്കറി വാങ്ങിക്കാൻ വേറെ വേറെ സ്ഥലങ്ങളിലാണ് പോവുന്നത് അപ്പോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് അവരെ പറഞ്ഞ് വിടാം അപ്പോൾ നിങ്ങൾ പച്ചക്കറിക്ക് ആ അതെ പച്ചക്കറിക്ക് നല്ലവണ്ണം വില കുറയ്ക്കുകയാണെങ്കിലും നല്ലത് നിങ്ങൾ ഉം ഉം ഉം ആ ഇല്ല ലിസ്റ്റ് നമ്മൾ വന്നിട്ട് പറയാം കാരണം എൻ്റെ കൈയിൽ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കിവിടൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ആ ഫംഗ്ഷൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കുറച്ച് കുറച്ച് പൈസ എടുത്തിട്ടുണ്ട്

ഉം ആ അപ്പം ഞങ്ങൾക്ക് കുറച്ച് പിന്നെ ആൾക്കാരെ ആദരിക്കാനായിട്ട് കുറച്ച് ഷാളും കാര്യങ്ങളും എല്ലാം വാങ്ങാനുണ്ട് അപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ ഡി ലിസ്റ്റ് തന്നിട്ട് അത് വാങ്ങിക്കാൻ പോയാൽ അത് വാങ്ങിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ നിങ്ങൾ സാധനങ്ങൾ എൽ റെഡി ആക്കിയിട്ട് വയ്ക്കുമല്ലോ ആ അപ്പം അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ വിളിക്കുന്നത് കാരണം നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന ഷോപ്പ് ആണ് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി വില കുറച്ച് തരുകയാണെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു അതുകൊണ്ട് ആ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞേക്കാം ആളെ കേട്ടോ നമ്മൾ ലിസ്റ്റ് ഇടാം ഓക്കെ ശരി ഓക്കെ താങ്ക് യൂ താങ്ക് യൂ